നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ആകാശത്ത് നമ്മള് നക്ഷത്രങ്ങളെ കണ്ടണ്ട് നക്ഷത്രങ്ങളെപ്പറ്റി എനിക്ക് കൂടുതല് പറയാനില്ല അവ നല്ല തെളിച്ചത്തോട് കൂടി നിൽക്കുന്ന നക്ഷത്രങ്ങള് ബു വരുന്ന ദിവസം നമുക്ക് ഭൂമിയിലേക്ക് നല്ല വെളിച്ചം രാത്രിയിൽ കിട്ടും പിന്നെ പ്രപഞ്ചം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭൂമി സൂര്യനെ ചുറ്റി വരാൻ മുന്നൂറ്ററുപത്തഞ്ചേ കാൽ ദിവസം അതിൽ നാല് വർഷത്തിലൊരിക്കൽ ആണ് ഭൂമീ കറങ്ങി വരുമ്പം ദിവസങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തൊമ്പത് എന്ന് പറയുന്നത് ആ ഒരു മാറ്റത്തിനെയാണെന്ന് മാറ്റത്തിനാണ് പിന്നെ ഭൂമിയിലല്ലാതെ വേറൊരു ഗ്രഹങ്ങളിലും മനുഷ്യ ജീവിതം ഇല്ല എന്നുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് ഇപ്പളാണ് ചന്ദ്രയാൻ അതിൽ വെള്ളം കണ്ടെന്തിയിരിക്കുന്നത് ഇത്രയെക്കെ പ്രപഞ്ചത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളു